ഹലോ ആ പറയൂ അതെ ആയിക്കോട്ടെ ആക്ച്വലി വരുന്ന തൊട്ട് ആ ശരി പറയൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ യു എ ഇ സെറ്റിൽ ഏത് ടൈപ്പ് വരുന്ന എല്ലാ സീ ഫുഡും കിട്ടും എല്ലാ സീ ഫിഷും കിട്ടും ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും അന്നേക്ക് ഉള്ള ഒന്നും ഇപ്പോൾ സ്റ്റോറേജിൽ വെയ്ക്കുന്നതല്ല ഫ്രഷ് ആയിട്ട് കടലിൽ നിന്ന് നേരിട്ട് പിടിച്ച് കൊണ്ട് വെരുന്ന ലൈവ് മീൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഡിഷസ് ഉണ്ട് അത് ഏതാണ് വേണ്ടതെന്ന് ഉള്ള പറയായുകയാന്ന് വച്ചാൽ അത് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന മീനിൻ്റെ പേര് പറയുകയാണെന്ന് വച്ചാൽ അത് കൊണ്ടുതരാം ലൈവ് ആയിട്ട് കൊണ്ട് വന്നിട്ട് നിങ്ങളെ ഇവിടെ മുമ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കി തരുന്നതായിരിക്കും ആ എല്ലാം കിട്ടും ആയതുകൊണ്ട് നമുക്ക് എല്ലാം കിട്ടും ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നമുക്ക് കിട്ടും കരിമീൻ കറി ആണെങ്കിലും കരിമീൻ പൊള്ളിച്ചത് ആണെങ്കിലും കരിമീൻ വെറും ഫ്രൈ ആയിട്ടുള്ളത് ആണെങ്കിലും ഏതാണെന്ന് വച്ചാൽ അത് വാങ്ങി ചില കൊഞ്ചിൻ്റെ വേണമെങ്കിൽ കൊഞ്ചിൻ്റെ എല്ലാ വെറൈറ്റീസും മസാല ഉണ്ട് ഫ്രൈ ഉണ്ട് പിന്നെ ഇങ്ങനെ പല വിധത്തിലുള്ള ഓരോ ഡിഷുകളും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടാമാകുന്നതെന്ന് വച്ചാൽ മെനു അയച്ചുതരാം മെനു പാർട്ട് അതിൽ നോക്കി പറഞ്ഞാൽ മതി കല്ലുമ്മക്കായ കിട്ടാറുണ്ട് അത് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കൂട്ടത്തിൽ സ്പെഷ്യൽ ആണ് സീ ഷെല്ലിൽ കിട്ടുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കി പറയാം ടേസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ചെറിയ പീസ് കൊണ്ട് കൊടുത്ത് വിടാം സ്രാവെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെയുള്ള വലിയ തരം മത്സ്യങ്ങൾ പിടിച്ച് എടുക്കാറില്ല ഇവിടെയെന്ന് വച്ചാൽ എടത്തരം മീനുകൾ മാത്രം പിടിച്ച് എടുക്കാറുള്ളൂ സ്രാവ് വേണമെന്നുവെച്ചാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ട് തരാം അത് മാത്രമേ ഉള്ളൂ സ്രാവെന്ന് പറയാൻ ഫിഷ് മോളി എങ്ങനയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ആപ്പ് ഒക്കെ ഉണ്ട് എല്ലാം മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ കുട്ടികളാണ് അവരൊക്കെ നല്ല ഡിഫറെന്റ് വെറൈറ്റീസും ഫോറിൻ വെസ്റ്റേൺ വെയ്ക്കുന്ന സ്റ്റൈലിൽ ഉണ്ടാക്കിക്കൊടുക്കുന്നതായിരിക്കും ഇന്ത്യക്കാർ ആണെങ്കിൽ ഇന്ത്യക്കാരുടെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കി കൊടുക്കുന്നു ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ടേസ്റ്റ് ആണ് ഓ ആ നോർത്ത് സ്റ്റൈലിൽ അറിയാം സൌത്ത് സ്റ്റൈലിൽ അറിയാം ഏത് വേണമെങ്കിലും ചെയ്യാം ഏത് സ്റ്റൈലാണ് വേണമെന്ന് വച്ചാൽ അത് കിട്ടും ടേസ്റ്റ് ഡിപ്പെൻഡ് അപ്പ് ഓൺ യു നിങ്ങൾക്ക് ആ അത് ടേസ്റ്റ് ആണ് മസാല കൂടുതൽ ഉള്ളതും മസാല അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റും ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആണല്ലോ നിങ്ങൾ പറയും പോലെ പറ്റാവുന്ന സ്റ്റൈലിൽ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കിത്തരാൻ ശ്രമിക്കാം ഓക്കേ ഓക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ എത്തുന്നതായിരിക്കും എവിടെ ആണ് അയച്ച് തരേണ്ടത് ഡെലിവറി ഓക്കെ താങ്ക് യൂ